ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആ ആദ്യ വിവാഹത്തിന് വേണ്ടി പെണ്ണും ചെറുക്കനും കണ്ട് ഉറപ്പിച്ചതിന് ശേഷം ഇരു കുടുംബങ്ങളും തമ്മിൽ വരുകയും ചെറുക്കൻ്റെ വീട്ടിൽ പോയി അത് ഉറപ്പിക്കയുമാണ് വിവാഹം ഉറപ്പിക്കയുമാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒത്ത് കല്യാണം നടത്തുക ഒത്ത് കല്യാണം നടത്തി വളരെ ആർഭാടമായ രീതിയിൽ പെണ്ണിൻ്റെ വീട്ടീൽ വന്ന് ചെറുക്കനും ചെറുക്കൻ്റെ ആൾക്കാരും വന്ന് ഒത്ത് കല്യാണം പള്ളിയിൽ വെച്ച് നടത്തിയതിന് ശേഷം അതിൽ നിന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് ആഹാരവും കഴിച്ച് അവിടെന്ന് പിരിയും വീണ്ടും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിവാഹത്തിലേക്ക് പോവുക ചെറുക്കൻ്റെ വീട്ടിലായിരിക്കും വിവാഹം വിവാഹം ചെറുക്കൻ്റെ ഇടവകയിൽ വെച്ച് പള്ളിയിലാണെങ്കിൽ അങ്ങനെ അവിടെ ഒന്ന് വിളിച്ച് ചൊല്ലി വിവാഹം നടത്തുകയാണ് പതിവ് അതിന്ശേഷം നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ആഹാരം കഴിക്കയും അവരോട് സംസാരിച്ച് ഉപാധികളുമായി സംസാരിച്ച് അവിടെ നിന്ന് പിരിയുകയാണ് പതിവ് അങ്ങനെ വളരെ സന്തോഷപ്രദമായ രീതിയിലുള്ള വിവാഹ ചടങ്ങുകളാണ് നമ്മുടെ ഇടയിലുള്ളത്